ആദ്യം തന്നെ ഗ്യാസ് നമ്മൾ വാങ്ങുമ്പോൾ സിലിണ്ടറി ൻ്റെ വാൽവ് ശെരിയാണോ അതിൻ്റെ ഡെലിവറി ബോയിയെ കൊണ്ടുതന്നെ അതെല്ലാം പരിശോധിച്ചിട്ടുവേണം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നമ്മൾ വാങ്ങുക അതിൻ്റെ വാൽവ് ശെരിയാണോ അതിൻ്റെ ഉറപ്പെല്ലാം നമ്മൾ തന്നെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പിന്നെ രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഗ്യാസ് ഉപകരണങ്ങൾ മാറ്റി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് ഉപകരണങ്ങൾ നിസാര കേടുകളുകളും നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം ഗ്യാസ് ഏജൻസിയെ ഏല്പിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മെക്കാനിക്കുകളെ കൊണ്ട് മാത്രം അത് ഉപയോഗിച്ച് ആ രീതിയിൽ കൈകാര്യം ചെയ്തു പോവുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പെ ഗ്യാസ് റെഗുലേറ്റർ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും അടുക്കളയിൽ ഗ്യാസ് മണക്കുന്നുണ്ടെങ്കിൽത്തന്നെ ഉടനെ തന്നെ അത് ഓഫ് ആക്കി ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എല്ലാം ഓഫ് ആക്കുക ജനലുകൾ തുറന്നിടുക ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിലെല്ലാം സേഫ് ആക്കുക ട്യൂബ് ഞാനൊരിക്കൽ പറഞ്ഞതാണ് ട്യൂബ് കാലാവധി തീരുമ്പോൾ തന്നെ അത് മാറ്റിവാങ്ങാൻ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ കൈ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യംകൂടി ആയിരിക്കണം പിന്നെ നമ്മള് പറയുവാണെങ്കിൽ അതിൻ്റെതായ രീതിയില് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ അപകടങ്ങൾ ഒന്നും ഗ്യാസിൽ വരാവുന്ന രീതിയിൽതന്നെ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളു പ്രത്യേകിച്ച് അതിന് വിശ്വ ക വേറെ സൂക്ഷിക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുള്ള കാരണങ്ങൾ ഒന്നും തോന്നുന്നില്ല നിസാര കേടുപാടുകൾ അപ്പോൾ തന്നെ തീർത്തുപോവുകയാണെങ്കിൽ ഗ്യാസ് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നതെ ഇത്രയും വർഷമായി ഞാന് ഗ്യാസുപയോഗിക്കുന്നു പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ദൂഷ്യവശങ്ങളും എനിക്കായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല ഞാന് അങ്ങനെതന്നെയാണ് ഉപയോഗിക്കുന്നത് എല്ലാവരും അതേരീതിയിൽതന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു വലിയ ഇതായിട്ട് തോന്നുന്നില്ല